എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ പണ്ട് ഇറങ്ങിയ പണ്ടല്ല കുറച്ച് മുന്നേ ഇറങ്ങിയ ബാഹുബലിയാണ് ബാഹുബലി വണ്ണും ഉണ്ട് ടുവും ഉണ്ട് രണ്ടും ഇഷ്ടമാണ് രണ്ടും നല്ല ത്രിൽ ആയിട്ടുള്ള സിനിമ ആണ് ഫുൾ കഥ കഥയെല്ലാം നല്ല കഥയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഫൈറ്റും ഫൈറ്റ് സീനും അതിലുള്ള റൊമാൻറ്റിക്കും എഡിറ്റ് എഡിറ്റ് അല്ല മറ്റേ ഫുൾ എഡിഷൻ മറ്റേ മലയിടിഞ്ഞ് വരികയും പുഴയിൽ നിന്ന് വെള്ളം വരികയും അതക്കെയാണ് അതെല്ലാം നല്ല നല്ല ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഒറിജിനൽ പോലെയാണ് തോന്നുന്നത് പിന്നെ അത് അതിലെ നടൻ നല്ല ബോഡി ആയിട്ടുള്ള ആളാണ് പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ സിനിമ എല്ലാം കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആര് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു സിനിമ ആണ് ബാഹുബലി അതിൽ വണ്ണിലെന്ന് പറഞ്ഞാൽ വണ്ണിൽ വണ്ണിലേക്കാൾ എത്രയോ കൂടുതൽ എത്രയോ കൂടുതൽ റിയൽ ആയിട്ടുള്ളതാണ് അതിൻ്റെ സെക്കന്റെ പാർട്ട് സെക്കന്റ് പാർട്ടിലെ ഫൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ സി നല്ല നല്ല നല്ല ഫൈറ്റ് ഒക്കെ ആണ് നമുക്ക് രോമാഞ്ചം വരുന്നത് പോലത്തെ ഫൈറ്റ് ഒക്കെ ആണുള്ളത് പിന്നെ അത് കഥ എന്ന് പറയുമ്പോൾ പുസ്തകം എന്നെല്ലാം പറയുമ്പോൾ പണ്ടത്തെ എഴുത്തുകാരെ കുറിച്ച് എഴുത്തുകാരില്ലേ പണ്ടത്തെ എഴുത്തച്ഛൻ അങ്ങനെ പഠിക്കാൻ സ്കൂൾ ബുക്കിൽ പഠിക്കാനുള്ള അത്ര പുസ്തകത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ അറിവില്ല സിനിമ ആണ് എൻ്റെ എനിക്കിഷ്ടം ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആണ് ബാഹുബലി പിന്നെ അങ്ങനെ കുറേ സിനിമ ഉണ്ട് ബാഹുബലി പുലിമുരുകൻ കെ ജി എഫ് കെ ജി എഫ് എല്ലാം അതേപോലെ തന്നെയാണ് ബാഹുബലി പോലെ തന്നെ ഫുൾ അടിയും അടിയും റൊമാൻറ്റിക്ക് ആയിട്ടുള്ള പ്രണയസീനുകളും അങ്ങനെയുള്ള എല്ലാം ആണ് അതിന്റെ അകത്തുള്ളത് പിന്നെ അതാച്ചാ അത്രയേ ഉള്ളൂ